ഈ പ്രദേശത്ത് സ്കൂളുകളുടെ വിഭവങ്ങളുടെ കുറവ് മൂലം ഒരുപാട് വെല്ലുവിളി വെല്ലുവിളികൾ നമ്മളും വിദ്യാർത്ഥികളും നേരിടുന്നു എന്നുള്ളത് സത്യമാണ്

അവരുടെ ഈ ഒരു കാലത്തിലുള്ള കാലങ്ങൾക്കനുസരിച്ചുള്ള അറിവുകൾ കരസ്ഥമാക്കാനോ അവർക്ക് കാലങ്ങൾക്കുള്ള ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അവർക്ക് കരസ്ഥമാക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഈ ഒരു വിഭവങ്ങളുടെ മൂലം അവർക്ക് ലഭിക്കുന്നില്ലാ എന്നുള്ള സത്യമാണ് അതുകൊണ്ട് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ ഈ ഒരു പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് എത്തിക്കുക എന്നുള്ളത് ഒരു സർക്കാരിൻ്റെയും അല്ലെങ്കിൽ അവിടുത്തെ സമുദായത്തിൻ്റെയും അതൊക്കെ അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്

അത് അവരെ വളരെ തല പുകയ്ക്കുന്ന അവർക്ക് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് ഒരുപാട് അവരുടെ സമയങ്ങൾ കൂടുതൽ സമയങ്ങൾ സാധാരണ ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയങ്ങൾ അവരുടെ ഈ ഒരു കാര്യങ്ങൾ പുതുക്കാനും